തൊണ്ടവേദനക്ക് എന്താകുക എന്താ പറഞ്ഞാൽ തുളസിയും പനികൂർക്കയിലും പിന്നെ ചു ചുക്കും കുരുമുളകും ശർക്കരയും മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ രണ്ടുമൂന്നു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടെ അത് കുടിക്കും പിന്നെന്താച്ചാൽ പുട്ടുംപാനിയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തല നല്ലവണ്ണം മൂടിയിട്ട് ആവി പിടിക്കും പിന്നെ ചോ ചുക്കും കുരുമുളകും കൽക്കണ്ടവും ശർക്കരയൊക്കെ കൂട്ടി നന്നായിട്ട് പൊടിച്ചിട്ട് അത് കുറേശ്ശെ പിന്നെ വായിൽ ഇട്ട് ചവച്ചിറക്കും പിന്നെ ചെറിയ ചൂട് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടങ്ങാണ്ട് തൊണ്ടയിലാക്കിയിട്ട് ഗാർഗിൾ ചെയ്യും